എൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളേയും കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ ഹസ്ബന്ഡ് ഹസ്ബന്ഡ് പേ ന്നെ ഹസ്ബന്ഡിന്ടെ പേര് പിന്നെ ആദിഷ് എന്നാണ് പിന്നെ ജോലി ചെയ്യുന്നത് പിന്നെ കോണ്സ്റ്റബിള് ആയിട്ട് പോലീസ് കോണ്സ്റ്റബിള് ആയിട്ട് വര്ക്ക് ചെയ്യുന്നു പിന്നെ ഇപ്പം ഒരു രണ്ടു വര്ഷായിട്ട് ഒള്ളൂ ഗവണ്മെന്റ് ജോലിക്ക് കേറിട്ട് പിന്നെ രണ്ട് പിന്നെ ആണ്മക്കളാണ് ഒരാള് രണ്ടാം ക്ലാസ്സില് പഠിക്കുന്നു ഒരാള് എല്കെജി പഠിക്കുന്നു പിന്നെ അവരു രണ്ടുപേരും ഒരേ ഉസൂ സ്കൂളില് തന്നെയാണ് പഠിക്കുന്നെ അപ്പം രാവിലെ അവര് ബസ്സുണ്ട് ആ ബസ്സിനാണ് പോവാ സ്കൂള് ബസ്സുണ്ട് സ്കൂള് ബസ്സിനാണ് പോവാ പിന്നെ പിന്നെ എന്താച്ചിട്ടുണ്ടാ വീട്ടില് പിന്നെ ഞാനും ഞാനൊരു സൂപ്പര് മാര്ക്കറ്റില് ബില്ലിംങ് സ്റ്റാഫ് ആയിട്ടാണ് വര്ക്കീയുന്നെ അപ്പം അതാണ് ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞിടെങ്കില് അങ്ങനാണ് പിന്നെ എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ പിന്നെ എറണാകുളത്തും ഹസ്ബന്ഡിന്ടെ അമ്മയും അച്ഛനും ഒക്കെ കണ്ണൂരും ആണ് പിന്നെ പിന്നെ സുഹൃത്തുക്കള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളൊക്കെ കൂടുതലും സൂപ്പര് മാര്ക്കറ്റിലും അങ്ങനുള്ള സ്ഥലത്തൊക്കെ കൊറച്ചു സുഹൃത്തുക്കളുണ്ട് എന്നാലും കൂടുതലൊക്കെ എനിക്ക് കൂടുതല് സുഹൃത്തുക്കളുള്ളെ എൻ്റെ അമ്മേന്ടേം അച്ഛന്ടേം അതായത് എറണാംകുളം ആ ഒരു ടൈം ആ ഒരു സ്ഥലത്താണ് പിന്നെ പഠിച്ച സ്ഥല്ത്തുന്നൊക്കെ ഒരുപാട് സുഹൃത്തുക്കളും കാര്യങ്ങളും ഒക്കെ ഇണ്ട് ഇപ്പഴും അവരു ആയിട്ട് കോണ്ടാക്ടും ഉണ്ട്